അതായത് കേരളത്തിൽ ഞങ്ങൾ പൊതുവേ കണ്ടുവരുന്നത് കർഷകരൊക്കെ കൂടുതലായും വളർത്തുന്നത് കന്നുകാലികളെയാണ് അവയുടെ അവശിഷ്ടമായിട്ട് അവര് യൂസ് ചെയ്യുന്നത് ചാണകം ഗോമൂത്രം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇതിപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു ജൈവവളമായിട്ടാണ് പൊതുവേ കണ്ടുവരുന്നത് കാരണം ചാണകം എല്ലാവരും തന്നെ കൃഷിയിടങ്ങളിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ചാണകം പോലുള്ള സാധനങ്ങൾ തന്നെയാണ് അത് ഏറ്റവും നല്ലൊരു ജൈവവളമായിട്ടാണ് പൊതുവെ എല്ലാവരും പറയുന്നതും പിന്നെ ആടിനെ വളർത്തുന്നവരുണ്ട് ആടിനെ വളർത്തുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളും പൊതുവേ ഇവിടെ പറമ്പുകളിലും ഈ തെങ്ങിൻ്റെ ചുവട് തടമൊക്കെ എടുത്ത് അതിൻ്റെ ചുവട്ടിലൊക്കെയാണ് സാധാരണ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ പൊതുവേ എന്താ പറയുക അത് യൂസ് ചെയ്യുമ്പോൾ അതിന്റേതായ ഗുണങ്ങളും മെച്ചങ്ങളും നേട്ടങ്ങളൊക്കെ ഈ പറമ്പുകളിൽ കൃഷി ചെയ്യുന്ന വിളകൾക്കൊക്കെ ലഭിക്കുന്നുണ്ട് പൊതുവേ ഈ ജൈവക്കൃഷിയോട് അങ്ങനെ ആർക്കും വലിയ താൽപര്യം ഇല്ല കാരണം ജൈവവളമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് ലഭിക്കുന്ന അതിന്റെ സാധനങ്ങൾ ഫലങ്ങളൊക്കെ എന്താ പറയുക അതൊക്കെ ഈ ഈച്ചകളും മറ്റും ഇതാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതലായും ജൈവവളം അങ്ങനെ ആ ഇപ്പോൾ അധികം ആരും ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല